ഹലോ ആ കോയാസ് റെസ്റ്റോറൻ്റ് പറഞ്ഞോളൂ മാം ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലെന്ന് പറയുന്നത് കരിമീൻ പൊള്ളിച്ചതുണ്ട് കരിമീൻ ഫ്രൈ ഉണ്ട് വരാൽ ഫ്രൈ ഉണ്ട് പിന്നെ മത്തി ഫ്രൈ ഉണ്ട് എല്ലാത്തരത്തിലുള്ള ഫ്രൈയും ഉണ്ട് മാം സ്പെഷ്യലായിട്ട് വരുന്നത് കരിമീൻ പൊള്ളിച്ചതാണ്

അഞ്ച് കരിമീൻ ഫ്രൈ ഒരു കരിമീൻ ഫ്രൈക്ക് വരുന്നത് അഞ്ഞൂറ്റി അറുപതാണ് മാം നമ്മുടെ സ്പെഷ്യൽ മെനുവാണ് മാം കരിമീൻ പൊള്ളിച്ചതിൻ്റെ കൂടെത്തന്നെ നമ്മൾ ഒരെണ്ണം ഒരെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ആണ്

മീഡിയം സൈസാണ് മാം ഓക്കെ അഞ്ച് എണ്ണം എടുക്കുമ്പോഴ്ത്തേക്കും നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട് മാം നിങ്ങൾ നിങ്ങൾ അഞ്ച് എണ്ണം അല്ലെ ഇപ്പം പറഞ്ഞിരിക്കുന്നത് അപ്പം ഏഴ് എണ്ണം പറയുവാണെങ്കിൽ ഏഴ് എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് മെഗാ ഡിസ്കൗണ്ട് തരാം മാം വേറെ കരിമീൻ പൊള്ളിച്ചത് ഇന്നത്തെ സ്പെഷ്യലാണ് കരിമീൻ പൊള്ളിച്ചതിന് ഇന്ന് ഓഫർ ഉണ്ട് റേറ്റ് കുറവാണ് വരാൽ ഫ്രൈയും ഉണ്ട് മാം കറിയും ഉണ്ട് ഫ്രൈയും ഉണ്ട് ഏതാണ് മാം പ്രീഫെർ ചെയ്യുന്നത് കറി മതി ഓക്കെ മാം അപ്പം നമ്മുടെ ഡീറ്റൈൽസൊന്നു പറയാവോ ഞാൻ നമുക്ക് ഹോ ഡെലിവറി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വന്ന് കളക്റ്റ് ചെയ്യുവോ എങ്ങനെയാണ് ഡെലിവറി മതി അപ്പൊം മാം അഡ്രസ്സ് ഒന്ന് പറയാവോ ഓക്കെ മാം ഓക്കെ ഞാൻ ഞാൻ എത്ര ഏതാണ് നിങ്ങൾ പ്രീഫെർ ചെയ്യുന്നത് ടൈം ഏതാണ് വൈകിട്ട് ആറ് മണിക്ക് അല്ലെ മാം ഒക്കെ അപ്പം മാം കറക്റ്റ് ആ സമയത്തേക്ക് ഓർഡറ് എത്തിച്ചേക്കാം അപ്പോൾ നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി ആണോ അതോ ഗൂഗിൾ പേ ആണോ ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത് ഗൂഗിൾ പേ ചെയ്യാം ഓക്കെ മാം അപ്പം ഞാൻ ഗൂഗിൾ പേയിൽ റിക്വസ്റ്റ് വിട്ടേക്കാം പിന്നെ ആറു മണിക്ക് തന്നെ ഫുഡവിടെ എത്തിച്ചെക്കാം നിങ്ങൾ അസമ്ഷൻ കോളേജ്ൻ്റെ അടുത്തു വരുമ്പോഴ്ത്തേക്കും ഒന്നൂടൊന്ന് ലൊക്കേഷൻ കൺഫേം ചെയ്യാനായിട്ട് നമ്മുടെ ബോയ് വിളിക്കുന്നതായിരിക്കും കേട്ടോ ബിരിയാണി ഉണ്ട് ബിരിയാണിം ഉണ്ട് കുഴിമന്തിം ഉണ്ട് സ്പെഷ്യൽ പോൺസ് ബിരിയാണി പ്രോൺസ് ബിരിയാണിം വരുന്നുണ്ട് ഓഫറ് ഉണ്ട് ഇന്ന് ഇന്ന് കൈമാ റൈസ് വെച്ച് ഉണ്ടാക്കുന്നതാണ് ആ ഒരെണ്ണം മതിയോ മാം ഓക്കെ ആയിക്കോട്ടെ അപ്പം അഞ്ച് പ്രോൺസ് ബിരിയാണി അഞ്ച് കരിമീൻ പൊള്ളിച്ചത് സോറി അഞ്ച് കരിമീൻ ഫ്രൈ ഒരു വാരൽ കറി ഒരു കരിമീൻ പൊള്ളിച്ചത് അങ്ങനെയല്ലേ മാം കറക്റ്റല്ലേ ഓക്കെ എമൗണ്ട് ഞാൻ വിളിച്ചു പറയാം ലൊക്കേഷൻ ആ സമയത്ത് കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ ബോയ് വിളിക്കുന്നതായിരിക്കും